പൗരന്മാർക്ക് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിക്കുന്ന മുഖ്യ പദ്ധതിയാണ് പ്രധാൻമന്ത്രി ജന്ധൻ യോജന ഇതിന് മിനിമം ബാലൻസ് ആവശ്യമില്ല റൂപേ ഡെബിറ്റ് കാർഡ് ആക്സിഡൻറ് ഇൻഷുറൻസ് അതുപോലെ ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ സൗകര്യങ്ങൾ ഇതിൽ നിന്നും ലഭ്യമാകും നേരിട്ടാനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതിനു വേണ്ടിയുള്ള മുഖ്യ അക്കൗണ്ട് പദ്ധതിയാണിത് അടുത്തത് ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ബാങ്കിടപാടുകൾ പേയ്മെന്റുകൾ എന്നിവ ഓൺലൈൻ വഴിയാക്കാൻ ലക്ഷ്യമിട്ടു തുടങ്ങിയ പദ്ധതിയാണിത് യു പി ഐ ബി എച്ച് ഐ എം ആപ്പ് ആധാർ എനേബിൾഡ് പേയ്മെൻ്റ് സിസ്റ്റംസ് തുടങ്ങിയവ ഇതിലൂടെ ശക്തിപ്പെടുത്തിയതാണ് അടുത്തത് ജനസുരക്ഷാ യോജനകൾ പ്രധാനമന്ത്രി ജീവൻജ്യോതി ഭീമാ യോജന കാർഷിക പ്രീമിയം നാന്നൂറ്റി മുപ്പത്തിയാറു രൂപ മരണമെന്തെങ്കിലും മൂലം സംഭവിച്ചാൽ രണ്ടു ലക്ഷം വരെ ഇൻഷുറൻസ് അതുപോലെ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജന ഇതിൻ്റെ വാർഷിക പ്രീമിയം ഇരുപതു രൂപയാണ് അപകടത്തിൽ മരണം അല്ലെങ്കിൽ വൈകല്യം മൂലമുള്ള മരണം സംഭവിച്ചാൽ രണ്ടു ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് അടൽ പെൻഷൻ യോജന അടിസ്ഥാന വേതനം ലഭിക്കാൻ ഒരു പെൻഷൻ പദ്ധതിയാണിത് പിന്നെ മൈക്രോ യൂണിറ്റ് ഡെവലപ്മെൻ്റ് ആൻഡ് റിഫൈനാന്സ് ഏജൻസി ചെറിയ വ്യാപാരികൾക്കും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കുമായി പത്തു ലക്ഷം വരെ ബാങ്ക് വായ്പ നൽകുന്ന പദ്ധതി അതിനുവേണ്ടി ശിശു കിഷോർ തരുൺ എന്നിങ്ങനെ തലങ്ങളുണ്ട് അടുത്തത് സ്റ്റാൻഡപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ വ്യവസായങ്ങൾക്ക് പ്രത്യേകിച്ചു വനിതകൾക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കുമായി ബാങ്ക് വായ്പ നൽകുന്ന നൽകുന്നതിനുവേണ്ടി തുടങ്ങിയ പദ്ധതിയാണിത് അടുത്തത് പി എം സ്വനിധി തെരുവു വിൽപ്പനക്കാർക്ക് ബാങ്ക് വായ്പ നൽകുന്ന ബാങ്ക് വായ്പ നൽകാൻ സഹായിക്കുന്നൊരു പദ്ധതിയാാണിത്